ഞാന് താമസിക്കുന്ന സ്ഥലത്ത് രാജവംശം ഭരണാധികാരികള് അങ്ങനെയൊക്കെ ഉണ്ടോന്ന് എനിക്കറിയില്ല ഇപ്പഴത്തെ കാലഘട്ടത്തില് എനിക്കറിയില്ല പണ്ടൊക്കെ ഇവിടെ നായന്മാരായിരുന്നു കൂടുതലും ഭൂസ്വത്തിന്റെ ഉടമകള് എന്നൊക്കെ കേട്ടിട്ടുണ്ട് പിന്നെ പോകെ പോകെ അവരുടെ കൈയില് നിന്നും ആ സ്വത്തുകള് ഒക്കെ അവര് അവരുടെ കൈയിലിരിപ്പ് കൊണ്ട് അതൊക്കെതന്നെ നശിച്ച് നശിച്ച് നശിച്ച് പോയി ഇപ്പം അങ്ങ് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നു കുറേ ആള്ക്കാര്ക്കൊക്കെ ഉണ്ട് നല്ല സ്വത്ത് ഇപ്പഴും ഉണ്ട് ചില ആള്ക്കാര്ക്ക് ഒന്നും ഇല്ല രാജവര്മ്മ എന്നുള്ളൊരു പേരുകള് മാത്രമെ ഉള്ളൂ ഇപ്പഴും നാലുകെട്ടുള്ള ചില വീടുകളൊക്കെയുണ്ട് പക്ഷെ ആ വീട് ഉണ്ടെന്നെ ഉള്ളു ഭയങ്കര ശോചനിയാവസ്ഥയാണ് ഹരിവര്മ്മ അങ്ങനെയൊക്കെ പേരുള്ള തമ്പുരാക്കന്മാരൊക്കെ ഉണ്ട് അതൊക്കെ ഏതു വിധത്തിലാണ് എന്നുള്ളത് എനിക്കറിയില്ല സംസ്ഥാനം ഭരിച്ചിരുന്ന തിരുവിതാംകൂര് രാജവംശം കോഴിക്കോട് സാമുതിരി അങ്ങനെയൊക്കെ കേട്ടിട്ടൊക്കെ ഉണ്ട് ഈ പ്രദേശത്ത് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് നായന്മാര് നായര് സമുദായത്തില് ഉള്ള ആള്ക്കാരുടെ വകയിലാണ് ഇവിടെ ഉണ്ടായിരുന്ന കൂടുതൽ സ്ഥലങ്ങളും ഇപ്പോൾ അത് പൊതുവേ മറ്റുള്ളവരുടെ കൈവശങ്ങൾളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്